ഹലോ കോഫീ ഹൌസല്ലേ നമുക്കിവിടെ ഒരു പിന്നെ ഒരു പാര്ട്ടിക്ക് വേണ്ടി ഓടെറ് ചെയ്യുന്ന ചെയ്യാന് വേണ്ടി കുറച്ച് പലഹാരങ്ങളും പിന്നെ കുറച്ച് ചോറും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വേണം അത് വൈകുന്നേരത്തേക്കാണ് പരിപാടി നമ്മളെ വീട്ടില് ഒരു ഫങ്ഷന് നടക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ കുറച്ച് ചിക്കന് ബിരിയാണി പിന്നെ കുറച്ച് പൊറോട്ട പിന്നെ കുറച്ച് ചിക്കന് കറി അങ്ങനെള്ള അങ്ങനെ എല്ലാ സാധനങ്ങളും വേണം അത് പിന്നെ വൈകുന്നേരം എട്ട് മണിയാവുമ്പോഴത്തേക്ക് കിട്ടുകയും വേണം അങ്ങനെ അതിന് വേണമെങ്കിൽ ആളെ പറഞ്ഞു വിടാം അല്ലെങ്കിൽ നിങ്ങള് കൊടുത്ത് വിട്ടാലും മതി പിന്നെ കുട്ടികളെല്ലാം അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് വേഗം എട്ട് മണിയാവുമ്പോഴത്തേക്ക് എത്തിക്കണം ഇപ്പോൾ തന്നെ സമയം ആറു മണിയായി നമുക്ക് തലേദിവസം നിങ്ങളോട് പറഞ്ഞ് എല്പിച്ചതാണ് അതുകൊണ്ട് പെട്ടന്ന് സാധനങ്ങള് എത്തിച്ചുതരിക ഫോണ് നമ്പറെല്ലാം ഞാന് പറഞ്ഞുതരാം ആ നമ്പറില് നിങ്ങള് എത്തിച്ചു തന്നാൽ മതി ഞാന് വിളിക്കാം പിന്നെ നിങ്ങള് നിങ്ങള് സാധനം എത്തിച്ചുതന്നാൽ മതി